ഹലോ തിയേറ്ററില്െ പ്രോഗ്രാൻ ടിക്കറ്റ് ബുക്കിംഗ് സെക്ഷൻല്ലേ ഞങ്ങളിപ്പോ കഴിഞ്ഞ രണ്ട്ു ദിവസം മുന്നേ ഞങ്ങള് റീസെൻ്ലി വരാൻ പോകുന്ന പ്രോഗ്രാം ബുക്ക് ചെയ്തിരുന്നു ഞങ്ങളുടെ ട്രാ ഓഫീസില് ട്രാൻസ്ഫോർമായി ബന്ധപ്പെട്ട് അർജൻറ്റായിട്ടുള്ള കൊറച്ച് മീറ്റിങ്ങിൻ്റെ അത്യാവശ്യം വന്നതിനാല് ഞങ്ങൾ ആ പ്രോഗ്രാമിൻ്റെ ഡേറ്റില് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ട വന്നതിനാും ഞങ്ങൾക്കത് കാണാൻ വരാൻ സാധിക്കില്ല ആ ഇതിനാലല് ഞങ്ങളുടെ ടിക്കറ്റ് റെഫറൻസ് നമ്പർ ഒമ്പതേ എട്ടേ ആറേ നാലേ എന്ന നമ്പറിൽ റഫ് ബുക്ക് ചെയ്തിട്ടുള്ള ടിക്കറ്റ് റദ്ദാക്കി തരണമെന്ന് അവക്ക് അപേക്ഷിക്കാനാണ് ഞാൻ വിളിച്ചിരുന്നത് വിളിച്ചിരിക്കുന്നത് അപ്പോൾ അത് ആ ടിക്കറ്റ് ഞങ്ങൾക്ക് റദ്ദാക്കിത്തരണം